ഹലോ നമസ്കാരം നിങ്ങള് നല്ല രീതിയിലാണുള്ളതെന്ന് വിശ്വസിക്കുന്നു അപ്പോള് ഞാന് ഇങ്ങനെയൊരു ഇമെയിൽ അയക്കുന്നതിന് ഞാന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഒരു പ്ലേ സ്റ്റേഷൻ വേണം പ്ലേ സ്റ്റേഷൻ ഫൈവ് ന്യൂ മോഡൽ വേണം അപ്പോള് അത് നോക്കിയപ്പോള് നിങ്ങള് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഇതിലുണ്ടെന്ന് സ്റ്റോക്കിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു എൻ്റെയൊരു ഫ്രണ്ട് പറഞ്ഞു അവിടെയുണ്ടാകുമെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കൂവെന്നുള്ളത് പറഞ്ഞു അപ്പോള് എനിക്കത് വേണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോള് ഞാനത് നിങ്ങളോട് ഇപ്പോള് ഇങ്ങനെ വിളിക്കാന് കാരണം എനിക്കുള്ള ആ മോഡലിൻ്റെ പ്ലേ സ്റ്റേഷൻ ഫൈവിൻ്റെ ആ പുതിയ വെർഷൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് പിന്നെ പുതിയ സ്റ്റോക്കുകള് വരാനുണ്ടോ ഇപ്പോള് ഇല്ലെന്നുണ്ടെങ്കില് ഇപ്പോളുടനെത്തന്നെ എത്തുമോ അതിൻ്റെ ടൈമൊക്കെ എപ്പോഴാണ് ഇങ്ങനെ ഏത് സമയത്താണ് ഡെലിവറി ചെയ്യാൻ പറ്റുക അതൊക്കെ ഓഫ് കോഴ്സ് ഇത് നമ്മളെ ചെറിയൊരു സാധനമൊന്നുമല്ല ഒരു വലിയ സാധനമാണ് പ്ലേ സ്റ്റേഷന് ഫൈവ് എന്നുപറയുമ്പോള് അപ്പോള് അതിന്റെ ഡെലിവറിയെക്കുറിച്ചും അതിൻ്റെ റേറ്റ് സംബന്ധമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചും അതിൻ്റെ ഇത് ഫീച്ചറുകളെക്കുറിച്ചും അതൊക്കെ റിട്ടേൺ പോളിസിയെക്കുറിച്ചുമൊക്കെ അറിയണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോള് ബന്ധപ്പെടുന്നത് ബേസിക്കലി ഞാന് ഗെയിം നന്നായിട്ട് കളിക്കുന്ന ഒരു ഗെയിമറാണ് അപ്പോള് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോള് ഈയൊരു പുതിയ പ്ലേ സ്റ്റേഷൻ വാങ്ങുന്നത് അപ്പോള് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉടനെത്തന്നെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു ഓ ഓക്കെ താങ്ക് യൂ